ശരി നിങ്ങൾ ഒരു ഹെഡ്ഫോൺ വാങ്ങുവാൻ ആഗ്രഹിക്കുകയാണ് ഓൺലൈനിലൂടെ വേങ്ങിയാലോ എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ഓൺലൈൻ മാർക്കറ്റ് ഉദാഹരണത്തിന് നിങ്ങൾ ആമസോൺ എടുക്കുകയാണ് ആമസോൺ ഓപ്പൺ ചെയ്തു അതിൽ നിങ്ങൾ ഹെഡ്ഫോൺസുകൾ സെർച്ച് ചെയ്യുകയാണ് ഹെഡ്ഫോൺസുകൾ സെർച്ച് ചെയ്യുന്നതിനനിടയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിയുടെയോ ഏതെങ്കിലും വിധത്തിലുള്ള ഹെഡ്ഫോണുകൾ നിങ്ങൾക്ക് താൽപര്യം ഉണ്ടാവൻ സാധ്യതയുണ്ട് ആ സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് താൽപര്യമുള്ള ഹെഡ്ഫോണുകൾ കണ്ടെത്തുക കണ്ടെത്തിയതിന് ശേഷം നിങ്ങളെന്താണ് ചെയ്യേണ്ടതെന്നാൽ ആ ഹെഡ്ഫോണിൻ്റെ കമ്പനിയുടെയും അതുേപോലെ ഹെഡ്ഫോണിൻ്റെ വിവരങ്ങളടങ്ങിയ ആ ശേഖരണങ്ങളിൽ നിങ്ങൾക്ക് ആഡ് ടു കാർട്ട് പോലെയുള്ള എന്തെങ്കിലും കമനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ കമനുകളിൽ ഞെക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് നിങ്ങളുടെ കാർട്ടിലേക്ക് ചേർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ ആ ഹെഡ്ഫോണുകൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാർട്ടിൽ പോയി ആ ഹെഡ്ഫോണുകൾ നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ് ഇനി ഈ ഹെഡ്ഫോണുകൾ നിങ്ങളുടെ കാർട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടാകും ആമസോണിലാണെങ്കിൽ ആമസോണിൻ്റെ പ്രൊഫൈൽ ഉണ്ടാകും ആ പ്രൊഫൈൽ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മൈ കാർഡ്സ് പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ബോക്സ് കാണാവുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് കാർട്ടിലേക്ക് ആഡായിട്ടുണ്ട് എന്നും പരിശോധിക്കാവുന്നതാണ്